എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ദുല്ഖര് സല്മാന് ഉണ്ണി മുകുന്ദന് ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദുല്ഖര് സല്മാനെ ഇഷ്ടമാവാന് കാരണം ചാര്ലി എന്റെ ഫേവറേറ്റ് സിനിമയാണ് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം തൊട്ടേ എനിക്കിഷ്ടമാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദനേയും ദുല്ഖര് സല്മാനേയും കാരണം എന്തോ ഭയങ്കര ക്രഷ് ആണ് അവരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദന്റെ ഒരു മുറൈ വന്ത് പാര്ത്തായ സിനിമയില്ലേ പ്രേതത്തിന്റെ പിന്നെ കുറേ നല്ല അച്ചായന്സ് ഇഷ്ടം ആണ് അവന്റെ കുറേ സിനിമ എനിക്ക് ഇഷ്ടമാ ദുല്ഖറിന്റെ എല്ലാ സിനിമയും ഇഷ്ടമാണ് നല്ല നല്ല കഥാപാത്രം വിക്രമാദിത്യന് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണ് അതേപോലെത്തന്നെ എനിക്ക് ഇഷ്ടം ഉള്ളൊരു കഥാപാത്രമാണ് പിന്നെ നയന്താര നയന്താരേനെ ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല റോളാണ് നയന് താരേന്റെ അതേപോലെ ശിവ കാര്ത്തികേയന് വിജയ് വിജയിന്റെ എല്ലാ സിനിമയും തമിഴില് അങ്ങനെ ഓരോ ഓരോ ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ മലയാളത്തില് ഇവരെ രണ്ടുപേരെയും പിന്നെ തമിഴിൽ വിജയിനെ ആണ് എനിക്കിഷ്ടം വിജയ് സൂര്യ പണ്ടത്തെ പ്രശാന്ത് പണ്ടൊരു ആക്ടറാണ് പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ തെലുങ്കിൽ പോവുകയാണെങ്കിൽ മഹേഷ് ബാബു എന് ടി ആർ രാംചരണ് അല്ലു അല്ലു അര്ജുന് അതേപോലെ തന്നെ ഹിന്ദി പോവുകയാണെങ്കിൽ വരുണ് തവന് സിദ്ധാര്ത്ഥ് ഷാരൂഖ് ഖാന് അങ്ങനെ ഉള്ളത് സൽമാൻ ഖാന് അവരെയൊക്കെ എനിക്കിഷ്ടമാ ഷെഹനാസ് ഗില്ല് അങ്ങനെയുള്ള എല്ലാവരേയും തന്നെ ഇഷ്ടമാണ് അവരുടെ സിനിമകളാണ് ഏറ്റവും കൂടുതല് ഇഷ്ടം അവര് ചെയ്ത വേഷങ്ങള് ഓരോ സിനിമയിലും അവര് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങള് ആണല്ലോ ചെയ്യുന്നത് അത് അത് കണ്ടിട്ട് അതൊക്കെ കണ്ടിട്ടാണ് അവരോടു കൂടുതല് കൂടുതല് ഇഷ്ടമാവാന് കാരണം